പട്ടണത്തിൽ ജീവിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് ജീവിത പങ്കാളിയെ കിട്ടാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതേ താൽപ്പര്യമുള്ള പട്ടണത്തിൽ ജീവിക്കുന്ന ഒരുപാടാളുകൾ പട്ടണത്തിലുണ്ടാവും പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ജീവിതപങ്കാളിയെ കണ്ടത്താനുള്ളൊരു വിലങ്ങുതടിയായി തോന്നുന്നില്ല രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഒരേ താൽപ്പര്യമുള്ള ആളുകൾ രണ്ടിടത്തുമുണ്ടായിരിക്കും അതൊരു ബുദ്ധിമുട്ടാവാൻ ഒരിക്കലും ഒരു സാധ്യത ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല